ഇപ്പോൾ മലയാള ഭാഷയില് ചരിത്ര ഭാഷ സംസ്കാരങ്ങളെ കുറിച്ച് സ്വാധീനിച്ചത് എന്ന് പറഞ്ഞു കഴിഞ്ഞാല് നമ്മളുടെ ഇപ്പം സംസ്കാരം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ മലയാള ഭാഷയാണ് മെയിൻ കാരണം മലയാള ഭാഷ പറയാത്ത ഒരാളുമായിട്ട് എന്താ പറയുക നമുക്ക് ഇപ്പം ഒരു എന്തെങ്കിലും കാര്യം ചർച്ച ചെയ്യാൻ ഒക്കെ ഭയങ്കര ബുദ്ധിമുട്ടായിരിക്കും അപ്പം എല്ലാവർക്കും മലയാളം അറിയണം എന്ന് ഇല്ല പക്ഷേ നമ്മള് മലയാളികളോട് ആണ് കൂടുതലായിട്ടും നമ്മൾ എന്തെങ്കിലും കാര്യങ്ങൾ ഒക്കേ പറയാറുള്ളത് മലയാള ഭാഷയുടെ ചരിത്രത്തില് മറ്റു ഭാഷകളും ഇടം നേടിയിട്ടുണ്ടോ എന്ന് ചോദിച്ചു കഴിഞ്ഞാല് സംസ്കൃതം ഭാഷ നമ്മുടെ ഇതില് ഇടം നേടിയിട്ടുണ്ട് കാരണം എന്ത് പറഞ്ഞാൽ സംസ്കൃതം എന്ന് പറഞ്ഞു കഴിഞ്ഞാല് സംസ്കൃതത്തിൽ നിന്ന് ഉൽഭവിച്ച ഒരു ഭാഷയാണ് മലയാളം എന്ന് വേണമെങ്കിൽ പറയാം അപ്പം അത് നല്ല രീതിയിൽ നമ്മളുടെ സംസ്കാരത്തെയും എല്ലാ കാര്യം എല്ലാ ഇതിനെയും നമ്മള് എന്താ പറയുക സ്വാധിനിച്ചിട്ടും ഉണ്ട്